നമുക്കറിയാം ഇന്ത്യയിലെ പത്തിരുപത്തെട്ട് സംസ്ഥാങ്ങളുണ്ടായിട്ടും കേരളത്തിലാണ് മലയാളം സംസാരിക്കുന്നത് പിന്നെ എഴുത്തച്ഛനാണ് മലയാളഭാഷ നമ്മളിലേക്ക് കൊണ്ട് വന്നിട്ടുള്ളത് അത് തന്നെ കവിതയിലൂടെയും സാഹിത്യത്തിലൂടെയും ആണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മലയാള ഭാഷ നമ്മുക്കറിയാം രൂപത്തിലും ഭാവത്തിലും അറിയാൻ കഴിയുന്ന ഒരു ഭാഷയാണ് നമുക്കറിയാം മലയാള ഭാഷയാണ് ലോകത്ത് തന്നെ രണ്ടാമതായി പഠിച്ചെടുക്കാൻ പ്രയാസമുള്ളൊരു ഭാഷ പിന്നെ മലയാള ഭാഷയ്ക്ക് കുറെയേറെ ശൈലികളുണ്ട് തിരുവനന്തപുരത്ത് പറയുന്ന ശൈലിയില്ലല്ല നമ്മൾ കാസർഗോഡ് പറയുന്നത് പിന്നെ സംസ്കൃതം തമിഴ് എന്നീ ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായത് അത് കൊണ്ട് തന്നെ നമ്മള് മലയാള ഭാഷയൊരു ദ്രാവിഡ ഭാഷ എന്ന പേരിലറിയപ്പെടുന്നുണ്ട് പിന്നെ മലയാളം നിലനിർത്താൻ വേണ്ടി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട് അത് പോലെ തന്നെ ഈ ഒരു സന്ദർഭത്തില് ഞാൻ ഇ സി സുച ഇ സി ജി സുദർശൻ പറയുന്ന ഒരു വാക്കുകൾ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തെ മലയാള ക്ലാസുകളാണ് ഫിസിക്സിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് ഞാന് ഈ ഒരു അവസ്ഥയിൽ ആലോചിച്ചു പോകുന്നു പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാവരും എന്താ കേരളത്തിൽ തന്നെ എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുട്ടികളെ നയിക്കുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് മലയാള ഭാഷയെ അറിയാത്തവരാണ് നമ്മുടെ മക്കളെ അതിലേക്ക് അയ് നയിക്കുന്നത്